എൻ്റെ ഫസ്റ്റ് പ്രോഡക്ട് മൊബൈലാണ് മൊബൈൽ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും നല്ലൊരു പ്രൊഡക്ടാണ് നമുക്കിപ്പോൾ ആശയവിനിമയം നടത്താനും അതായത് ദൂരെയുള്ളവരെ വിളിക്കാനും അവരുടെ വിശേഷങ്ങൾ അറിയാനും പിന്നെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റാത്തവരാണേൽ നമുക്ക് വീഡിയോ കോളിൽ കാണാനും അങ്ങനെ ഉള്ള അതായത് അങ്ങനെ ഉള്ള എല്ലാ കാര്യത്തിനും വേണ്ടി അതായത് മൊബൈല് നല്ലതാണ് പക്ഷേ അതിനെയിപ്പോൾ ദോഷങ്ങളെന്ന വെച്ച് പറയുകയുണ്ടെങ്കിൽ ഒരുപാട് ദോഷങ്ങളുണ്ട് ഗുണോം ഉണ്ട് ദോഷവും ഉണ്ട് ദോഷമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാന്ന് വെച്ചാൽ ഇപ്പോൾ ഓവർ ഉപയോഗങ്ങളാണ് അതായത് മൊബൈലൊക്കെ ഇപ്പം എല്ലാവരും ദുരുപയോഗം ചെയ്യുവാണ് അതായത് മോശമായ ചെറിയ കുട്ടികൾ വരെ മോശമായ വീഡിയോകൾ കാണലും പിന്നെ പലരുമായിട്ട് ചാറ്റ് ചെയ്തിട്ട് ഓരോ കുഴിയിൽ പോയി വീഴലും അങ്ങനത്തെ പല പല പ്രശ്നങ്ങളും പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ചെറിയ ചെറിയ കുട്ടികൾ വീഡിയോ കണ്ട് കണ്ട് കണ്ട് കണ്ട് കണ്ട് അതായത് കണ്ണ് നാശമായി പോകുന്നതും അങ്ങനെ പല പല ഡിസ്ടവൻ്റെജസും ഉണ്ട് ഒരുപാട് ഡിസ്ടവാൻ്റേജും ഉണ്ട് അതുപോലെത്തന്നെ അഡ്വാൻ്റേജും ഉണ്ട്